ആ അതെ അക്ഷയ് ആണ് അക്ഷയ് ആണ് ആ ആ ആയിക്കോട്ടെ കൊടുക്കാം നിങ്ങൾ വന്നോളൂ ഇത് നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് കിട്ടിയില്ലേ ആ അതിൻ്റെ ലെറ്റർ അലോട്ട്മെൻ്റ് ലെറ്റർ മാർക്ക് ലിസ്റ്റ് ഇല്ലേ സർട്ടിഫിക്കറ്റ് കിട്ടീനോ ആ മ് എന്നാൽ പിന്നെ ആ പിന്നെ ആധാർ വെണം ആധാറിൻ്റെ ഒരു കോപ്പി എടുത്തോളൂ റേഷൻ കാർഡ് പിന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതും സ്കൂളുകളെ നമുക്കിപ്പോൾ ഇവിടെ വന്നിട്ട് നോക്കേണ്ടി വരും എന്താണ് പറയുക നമ്മൾ ആ കംപ്യൂട്ടറിൻ്റെ ഇതടിച്ച് നോക്കുമ്പോളേ നമ്മൾ ആ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് നോക്കാനേ എല്ലാ സ്കൂളും നമ്മളെ ഈ ഭാഗത്തെ എല്ലാ സ്കൂളും ഉണ്ടാവും നിങ്ങൾക്ക് എത്രയാണ് അല്ല എത്ര പെർസൻറേജ് ഉണ്ട് മാർക്ക് ഉണ്ട് ആ എട്ട് നമുക്ക് കൊടുത്ത് നോക്കാം ഏകദേശം

നിങ്ങൾ ഏ ഒരു ആ ഒരു രണ്ടാഴ്ച്ചയും കൂടി ഉണ്ട് നിങ്ങൾ നേരത്തേ വന്നോളൂ തിരക്കില്ലാതെ ചെയ്ത് പോകാം ഏതാണ് നിങ്ങൾ വിഷയം എടുക്കുന്നത് ഏതാണ് വിഷയം കൊടുക്കുന്നത് സയൻസ് ആണ് അല്ലേ സയൻസ് നമുക്ക് ബുക്കളത്തൂർ ഒക്കെ നല്ല സ്കൂൾ ആണ് ഞങ്ങൾ ഹയർ സെക്കൻഡറി പഠിച്ച സ്കൂളിലൊക്കെ തന്നെ കൊടുക്കാം അല്ല ഹൈ സ്കൂൾ പഠിച്ച അതാവുമ്പോൾ കുറച്ച് പോയിൻറ് ഒക്കെ ഉണ്ടാവും ആ ഗ്രേസ് മാർക്ക് എന്തെങ്കിലും വേറെ ഉണ്ടോ ആ ഏതായാലുമേ നിങ്ങളേ നിങ്ങൾ ഫോം ഒക്കെ കൊണ്ട് ഒഴിവുള്ളപ്പോൾ വരൂ ഇവിടെ ഭയങ്കര തിരക്കാണ് അക്ഷയയിൽ നിങ്ങൾ ആ ഓക്കെ ഓക്കെ